ഹലോ ആ പാൻ കാഡ് സപ്പോട്ട് ടീമല്ലേ ആ ഞാൻ വിളിച്ചത് ഞാന് ഈ റീസ ഈ അടുത്തിടയ്ക്ക്

ടി വെട്ടി എ എന്നിങ്ങനെയാക്കി അപ്പോള് എൻ്റെ ഞാനിപ്പോള് വിളിച്ചതിനുദ്ദേശം എൻ്റെ പാൻ കാര്ഡില് ഈ പേര് മാറിയിട്ടില്ല ഞാന് ആധാർ കാഡ് കഴിഞ്ഞ ദിവസം ഗസറ്റിൽ കൊടുത്ത് എൻ്റെ പേര് മാറ്റുകയും എൻ്റെ ആധാര് കാഡ് പുതിയ പേര് ഇന്ന പേരിലുള്ള ആധാർ കാഡ് ഇപ്പോള് എൻ്റെ കൈവശം ലഭിക്കുകയും ചെയ്തു അപ്പോള് ഞാൻ ഞാൻ വിളിച്ചതെന്തെന്ന് വച്ചുകഴിഞ്ഞാൽ എനിക്കെൻ്റെ പാൻ കാഡില് ഈ ആധാർ കാഡില് പേ പേര് എത്രയും എളുപ്പം മാറ്റേണ്ടതുണ്ട് അപ്പോള് എനിക്ക് അതിന് വേണ്ട കാര്യങ്ങളുടെ അപ്ഡേഷനറിയാനാണ് ഞാന് വിളിച്ചത് അതിൻ്റെ പ്രക്രിയ എങ്ങനെയാണ് അതിനുള്ള കാര്യങ്ങളറിയാൻ ആണ് വിളിച്ചത് ഓക്കെ അപ്പോള് ഞാൻ സാദ്യമായി സ സമർപ്പിക്കേണ്ട രേഖയെന്തെന്ന് വച്ചുകഴിഞ്ഞാൽ എൻ്റെ പുതുതായി ചേഞ്ച് ചെയ്ത പേര് അടങ്ങിയ ആധാർ കാഡ് ഞാൻ സമർപ്പിക്കണം എന്ന് എനിക്കറിയാം ഇത് കൂടാതെ മറ്റെന്ത് രേഖകളാണ് എൻ്റെ ഈ പേര് മാറ്റുന്നതിനുവേണ്ടി സമർപ്പിക്കേണ്ടതെന്ന് അറിയാനാണ് ഞാന് വിളിച്ചത് ഞാൻ നിയമപരമായി എല്ലാ രീതിയിലും തന്നെ ആണ് എൻ്റെ പേര് മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്തത് ഇത് മുമ്പിലത്തെ എൻ്റെ പേര് ഇങ്ങനെയായിരുന്നു ഇപ്പോഴത്തെ എൻ്റെ പേര് ഇങ്ങനെയാണ് അത് എൻ്റെ ആധാർ കാഡിൽ മാറി കിട്ടിയിട്ടുണ്ട് അതിനേകദേശം ഒരു മാസത്തോളം സമയെടുത്തു ഇനി എനിക്കറിയേണ്ട മറ്റൊരു കാര്യം ഈ പേര് പാൻ കാഡിലേക്ക് മാറി കിട്ടാനാണ് ഞാനിപ്പോള് വിളിച്ചതെന്ന് അറിയാമല്ലോ അപ്പോള് ഈ രേഖകൾ സമർപ്പിച്ച് ഞാനതിൻ്റെ ആപ്ലിക്കേഷൻ മുന്നോട്ടു വച്ചുകഴിഞ്ഞാല് എത്ര നാൾക്കുള്ളിൽ എനിക്കിത് അപ്ടെ എൻ്റെ പാൻ കാഡ് അപ്ഡേറ്റായിക്കിട്ടും എന്നതിനെ കുറിച്ചും എനിക്ക് അറിയേണ്ടതുണ്ട് അതുപോലെ എന്തൊക്കെ രേഖകളാണ് ഞാൻ സമർപ്പിക്കേണ്ടത് എത്ര കാലാവധി ഇതിന് എടുക്കും എന്നും എനിക്ക് അറിയാൻ ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞ് ആ രേഖകള് നൽകാൻ ഞാനിപ്പോള് തയാറാണ് ഏതൊക്കെ രേഖകളാണ് വേണ്ടതെന്ന് അറിയിക്കണം അതിന് എത്ര കാലതാമസം വരും അല്ലെങ്കിലെത്ര കാലാവധി ഞാൻ കാത്തിരിക്കേണ്ടി വരും എന്ന് അറിയിക്കുമെന്ന് ഏറ്റും താഴ്മയായിട്ട് ഞാൻ അപേക്ഷിക്കുന്നു എനിക്ക് വിവരങ്ങൾ പറഞ്ഞ് തന്ന പാൻ കാഡ് സപ്പോട്ട് ടീമിന് ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയും ചെയ്യുന്നു താങ്ക് യു